എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യങ്ങള് ബൈക്കില് യാത്ര പോക്ക് എനിക്കൊരു വണ്ടി മേടിച്ചു തന്നാൽ അതിൻ്റെ അത്ര വലിയ സന്തോഷം വേറൊന്നില്ല പിന്നെ എനിക്ക് ബസില് ഡ്രൈവറായിട്ട് പോകുന്നത് റൊമ്പ ഇഷ്ടാണ് ലോങ്ങ് ട്രിപ്പ് പോകാൻ വല്ലാത്ത ഇഷ്ടമാണ് പിന്നെ അതേപോലെ നമ്മള് ഇങ്ങനെ പുഴ അരികത്ത് പോയിരിക്കുന്നത് ഇത് ആശ്വാസമാണ് മനസ്സിനൊരു ആശ്വാസമാണ് പിന്നെ നമുക്ക് വിമാനം എനിക്ക് വലിയ ആഗ്രഹം വിമാനത്തിൽ കയറണമെന്നാണ് വിമാനത്തിൽ കയറിയാൽ ഏറ്റവും വലിയ സന്തോഷം വേറൊന്നുമില്ല ട്രെയിനിലൊക്കെ പോകുമ്പോൾ എന്തോരം സന്തോഷമാണ് ദൂരെ സ്ഥലങ്ങളിൽ എത്തി അവിടുത്തെ മലകളും എല്ലാം കാണുമ്പോൾ ഒരു സന്തോഷമാണ് പിന്നെ അതേപോലെ ഊട്ടി പോകാൻ ഇഷ്ടമാണ് അമേരിക്കയിൽ പോകാനിഷ്ടമാണ് എനിക്കേറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം പോളണ്ടാണ് പോളണ്ടിൽ പോകാനാണ് ഏറ്റവും കൂടുതലിഷ്ടം പിന്നെനിക്ക് ബൈക്ക് ഓടിക്കാൻ നല്ല ഇഷ്ടാണ് ഡ്രൈവ് ചെയ്യാൻ നല്ലോണം ഇഷ്ടമാണ് അങ്ങനങ്ങനെ ചില കാര്യങ്ങളാണ് എനിക്കിഷ്ടം പിന്നെ ഗെയിം കളിക്കാൻ ഇഷ്ടമാണ് ഗെയിം നല്ല ഇഷ്ടമാണ് ഫ്രീഫയർ കളിക്കാനൊക്കെയാണ് നല്ലോണം ഇഷ്ടം അതേപോലെത്തന്നെ ബൈക്കോടിച്ച് പോകുമ്പോഴും മെല്ലെ പോയ മെല്ലെ പോകുന്നതാണ് ഏറ്റവും കൂടുതലിഷ്ടം മെല്ലെ പോകാനാണ് ഇഷ്ടം കൂടുതല് കുറെ മെല്ലെ പോകും പിന്നെ വേഗത്തിൽ പോകുമ്പോൾ ഒരു സന്തോഷമാണ് പിന്നെ അതേപോലെ നമുക്ക് വണ്ടിയോടിക്കാനും കാറോടിക്കാനും ബസ്സില് ടൂറിസ്റ്റ് ബസ്സിൽ ടൂറിസ്റ്റ് ബസ്സിൽ നമുക്ക് പോകാനൊക്കെ എനിക്ക് വല്ലാത്ത ഇഷ്ടാണ് അങ്ങനെയൊക്കെ കുറെ താത്പര്യങ്ങളുണ്ട് ഏറ്റോം കൂടുതലിഷ്ടം ടൂറിസ്റ്റ് ബസ്സില് ട്രിപ്പ് പോകാനും ഓരോ ഏരിയകളിൽ പോക്കും അതൊക്കെ മല കാണാനും ഇങ്ങനെ ഊട്ടി കൊടൈക്കനാൽ ഒക്കെ പോവാൻ റൊമ്പ ഇഷ്ടാണ് അങ്ങനെ കുറെ ഏരിയയിൽ പോണം അങ്ങനത്തെ വലിയ ഇഷ്ടങ്ങളാണ് അതുപോലെ ദൂരയാത്ര പോക്ക് റൊമ്പ ഇഷ്ടമാണ്